എൻ്റെ വീട്ടിൽ പണ്ട് എൻ്റമ്മ പശുക്കളെ വളർത്തുമായിരുന്നു പശുക്കളും ആടും കോഴിയും താറാവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളക്കെ ജനിച്ചപ്പോഴേ എപ്പോഴും നല്ല പാൽ നമുക്ക് കിട്ടുന്നത് കുടിക്കാൻ വേണ്ടീട്ട് കാരണം വീട്ടിലെ ഫ്രഷ് ആണ് ഇന്നത്തെ പോലെ മിൽമ വാങ്ങിച്ചിട്ടൊന്നുമല്ല അപ്പോൾ ഈ പശു ചില സമയത്ത് പ്രസവിക്കുവല്ലോ അപ്പം ഞങ്ങളീ പശു പ്രസവിക്കാൻ വേണ്ടി കാത്തിരുന്ന് കാത്തിരുന്ന് അതും ഒരു കുഞ്ഞ് കുട്ടീനെ കിട്ടും അത് ആണായാലും പെണ്ണായാലും എല്ലാവർക്കും സന്തോഷമാണ് അപ്പം ഞങ്ങളുടെ വീട്ടിലൊരു പൊന്നു ഉണ്ടേ ഞങ്ങള് പോന്നൂന്നാ വിളിക്കുക ഒരു കടിച്ചി കുട്ടി ഉണ്ടായത് അപ്പം അതിന് രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് വന്ന് എപ്പോഴും തുടച്ച് മിനുക്കി കുളിപ്പിച്ച് പൊട്ടൊക്കെ വെച്ച് കൊടുക്കുവേ അമ്പലത്തിലക്കെ പോയിട്ടക്കെ ഉണ്ടെങ്കിൽ അമ്പലത്തിലക്കെ ഞങ്ങൾ വന്ന് ചന്ദനമോ സിന്ദൂരക്കെ അതിൻ്റെ നെറ്റീലക്കെ ചാർത്തി കൊടുക്കും പിന്നെ പണ്ട് മുതലേ ഭഗവാൻ്റെ ഒരിഷ്ടപ്പെട്ടതാണ് കൃഷ്ണനാണ് കൃഷ്ണ ഭക്ത അയിരുന്ന് അപ്പോൾ കൃഷ്ണനിഷ്ടപ്പെട്ടതാണല്ലോ പശുക്കളേന്ന് ഉള്ളതിൽ നമ്മളെപ്പഴും അതേ കൃഷ്ണ ഭഗവാനെ കാണുന്ന പോലെ തന്നെ ഇഷ്ടത്തോടെ ആണ് എപ്പോഴും ഈ പശുക്കിടാങ്ങളെ ഒക്കെ കാണുന്നത് അതിനെ ഒക്കെ ഓടിച്ച് പറമ്പിലക്കെ ഓടിച്ച് അതിനെ കൊണ്ടു പോയി അതിനു പുല്ലും നമ്മളെ കൊണ്ട് ഞങ്ങൾ കുട്ടികളായിരിക്കുന്ന സമയത്തെ കാര്യമാണേ പറയുന്നേ അപ്പം പുല്ലക്കെ പറ്റുന്ന പോലക്കെ പുല്ലക്കെ പറിച്ച് അതിൻ്റെ വായില് വെച്ച് കൊടുക്കും മറ്റേ വാഴ ഇല ഒക്കെ മുറിച്ചിട്ടക്കെ കൊടുക്കും അതൊക്കെ ഒരു രസമല്ലേ വലിയ പശൂൻ്റടുത്ത് പോകാനൊക്കെ പേടിയാണ് പക്ഷേ ഞങ്ങളതിനെ ഇങ്ങനെ എപ്പോഴും ഭയങ്കരിഷ്ടത്തോടെ അതിനെ ഉമ്മ വെച്ചിട്ടും അതിനെ പിണ്ണാക്കും വെള്ളവും പിന്നെ അച്ഛനും അമ്മയുമൊക്കെ വെള്ളം കൊടുക്കുന്നൊക്കെ പറയുമ്പോൾ ചെറിയ ബക്കറ്റിലക്കെ ആക്കീട്ട് വെള്ളമൊക്കെ കൊണ്ട് കൊടുക്കും അങ്ങനെ ഒരുപാട് ഇഷ്ടത്തോടേം സ്നേഹത്തോടെ ഒക്കെ ആണ് ഈ പശുക്കിടാവിനെ ഒക്കെ ഞങ്ങൾ നോക്കുന്നത് എല്ലാ കൂട്ടുകാർ വന്നിട്ടാകുമ്പോൾ കൂട്ടുകാരൊക്കെ കൂട്ടീട്ടൊന്ന് ഓടി കളിയാക്കാനും ആതിൻ്റെ കഴുത്തിൽ നല്ലൊരു മണി കെട്ടി കൊടുക്കണം എനിക്കെപ്പഴും ഓർമ്മയുണ്ട് നല്ലൊരു മണി ഉണ്ട് അത് ഓടി ചാടുമ്പോൾ നല്ല കിലുക്കമുണ്ടാവും